കോഴി വ്യാപാരത്തിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഈ പക്ഷിപ്പനി എല്ലാം വരുന്ന സമയത്ത് കോഴീടെ ആയാലും താറാവിൻ്റെ ആയാലും വള വില വളരെയധികം കുറയുന്നു ആ സമയത്ത് കോഴികൾ ചിലവാവുകയില്ല കോഴികളെ ആരും വാങ്ങിക്കാൻ വരുകയില്ല ആ സമയങ്ങളിൽ കോഴികളുടെ ഭക്ഷണം നമുക്ക് വളരെയധികം ചിലവേറിയതാണ് കാരണം കുറേ കോഴികൾ ഒരുമിച്ച് വളർത്തുന്ന ഒരു വ്യക്തിക്ക് അത് സമയാസമയങ്ങളിൽ വിറ്റ് പോയില്ലെങ്കിൽ അത് അവരുടെ സാമ്പത്തികമായി അവരെ വളരേയധികം ബാധിക്കും ഇനി ഞാൻ കുറച്ച് നാൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ കോഴികളെയും എൻ്റെ നായക്കുട്ടിയേയും എല്ലാം വളർത്തുന്നത് അയൽവാസികളാണ് പരിപാലിക്കുന്നത് അയൽവാസികളാണ് അതായത് അം ഈ കോഴിക്ക് വേണ്ട ഭക്ഷണങ്ങൾ പട്ടി കുട്ടിക്ക് വേണ്ട ഭക്ഷണങ്ങളുടെ ഭക്ഷണരീതി എല്ലാം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പുറത്ത് പോയി നിൽക്കുക പെട്ടന്ന് പോകണ്ടി വന്നാലും എന്നെ എൻ്റെ അയൽവാസികൾ വളരെയധികം സഹായിക്കാറുണ്ട്